എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ കഥയൊക്കെ എഴുതുമായിരുന്നു കഥയും നോവലുകൾ അങ്ങനെയൊക്കെ എഴുതുമായിരുന്നു പക്ഷേ വലുതായപ്പോൾ അത് പബ്ലിഷ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റിയില്ല ചെറുപ്പം മുതലേ ഞാൻ എല്ലാം എഴുതി എല്ലാം പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല കവിതകളായിരുന്നു കഥ കഥകളായിരുന്നു കഥകളൊക്കെ കുറേ നന്നായിട്ട് മറ്റുള്ളവർക്ക് ഇൻസ്പെയർ ചെയ്യാൻ പറ്റുന്നൊരു കഥയൊക്കെയായിരുന്നു ഞാൻ എഴുതിയത് നന്നായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേർഡ്സിൽ തന്നെയായിരുന്നു ഞാൻ എഴുതിയത് എല്ലാവർക്കും എല്ലാവരിലൂടെയും ഒരു അഭിപ്രായം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് അഭിപ്രായം തന്നെയായിരുന്നു നന്നായിട്ട് നന്നായിട്ട് എഴുതാനറിയും അല്ലെങ്കിൽ നന്നായി ഇനിയും എഴുതണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കവിതയാണെങ്കിലും കവിത ചെറുപ്പം മുതലേ അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു ടെൻത്ത് വരെയൊക്കെ അത് കണ്ടിന്യു ചെയ്തു ടെൻത്ത് വരെ ഞാൻ എൻ്റെ ഓരോ കവിതകളും ഞാൻ ടീച്ചേഴ്സ്മാരെ ഒക്കെ കാണിച്ച് അവരിലൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻസ്പെയർ ചെയ്യാൻ പറ്റണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേ ഇന്ത്യയിൽ മൊത്തത്തിൽ വ്യാപിക്കുക ഏങ്ങനെ ചോദിച്ച് പറഞ്ഞാൽ നമ്മൾ നമ്മളത്രയും ഇൻ്റലിജൻ്റാവണം ആ ഒരു എഴുത്തിനായാലും അതിനായാലും നന്നായിട്ട് ഇൻ്റലിജൻ്റാവണം എന്നാലേ നമുക്കാ ഓരോ ഇതും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ പക്ഷെ എഴുതും പക്ഷേ അത് ഇപ്പോൾ മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നാണ് ഭയങ്കര ഒരു സങ്കടം എന്ന് പറയുന്നത് പിന്നീട് ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും അത് ഭയങ്കര എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളതും ഇത്രനാൾ എഴുതിയിട്ടുള്ളതും ഇപ്പോൾ എഴുതുന്നതും അപ്പോൾ നല്ല ഇൻസ്പെയർ ആവുന്ന എന്തെങ്കിലുമൊക്കെ ആയിരുന്നു ഞാൻ എഴുതിയിട്ടുള്ളത്